എന്റെ പാചകവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പാചകം ചെയ്യുക അപ്പം നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ പിന്നേ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ആണ് അപ്പം ഞാൻ അഥവാ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പം എനിക്ക് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ന നൈസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് മാനന്തവാടി ആ ഒരു കുഴിനിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പം അവിടെ പോയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് ഞാനും എന്റെ വൈഫും മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ അത് നല്ലൊരു അനുഭവമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ബിരിയാണി ആണ് അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അൽഫാം മന്തി അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാറുണ്ട് ബിരിയാണി കൂ ഇടയ്ക്ക് എന്റെ വൈഫ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിത്തരുമെങ്കിലും ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമുക്കിപ്പം പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നി ഇപ്പോൾ വൈഫിന് വയ്യാണ്ടായി അങ്ങനെ എന്തെങ്കിലും പ്രശ്നനങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ നേരെ ടൗണിൽ പോയിട്ട് കഴിക്കാറാണ് പതിവ് ആ അപ്പം ഏതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ പാചകവിധി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക നന്നായിട്ട് ജീവിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു മെയിൻ ഇത്